നമ്മള് സ്കൂളില് ചിത്ര രചന പഠിച്ചെന്ന് പറയാൻ അതിനായിട്ടൊരു ടീച്ചറോ സാറോ ഉണ്ടാവും അവര് നമുക്ക് ഓരോ പീരീഡ് വച്ചിട്ടാണ് നമുക്കോരോ സബ്ജക്റ്റൊക്കെ പഠിപ്പിക്കുന്നതൊക്കെ ഇപ്പോൾ അരമണിക്കൂറ് അരമണിക്കൂറ് ഇടവിട്ടിട്ടാണ് ഓരോ സബ്ജക്റ്റൊക്കെ പഠിപ്പിക്കുന്നത് ആ സമയത്ത് അതിലേതെങ്കിലും ഒരു സബ്ജക്റ്റായിട്ട് ഈ ചിത്ര രചനക്കായിട്ട് ഒരു സബ്ജക്റ്റുണ്ടാവും ആ സമയത്താണ് ഞമ്മക്ക് ടീച്ചറാണെങ്കിലും സാറാണെങ്കിലും ഇവര് വന്നിട്ട് നമുക്ക് ആദ്യം പഠിപ്പിച്ചു തരും ചിത്രം വരക്കാനൊക്കെ അങ്ങനെ പഠിപ്പിച്ചു തരാറുണ്ട് അങ്ങനെയാണ് ഞാന് ചിത്രം വരക്കാനൊക്കെ നന്നായി പഠിച്ചിട്ടുള്ളത് ടീച്ചറായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത് ഞങ്ങൾക്ക് ടീച്ചറ് രാവിലെ മോർണിംഗ് രണ്ടാമത്തെ പീരീഡായിരുന്നു ചിത്ര രചനയ്ക്കായിട്ട് മാറ്റി വച്ചത് അവര് രാവിലെ വരുമ്പോൾ നല്ല എല്ലാവരും നല്ല ഫ്രഷായിട്ടുള്ള സമയമാണ് ആ സമയത്തൊക്കെ ചിത്രം വരക്കാനൊക്കെ നല്ലൊരു ഇൻട്രസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ട്ടമാണ് അങ്ങനെ വിചാരിച്ചിട്ട് രണ്ടാമത്തെ പീരീഡിനാക്കി അങ്ങനെ ആ പീരീഡിൻ്റെ സമയത്തും ടീച്ചറ് വന്നിട്ട് ഞമ്മക്ക് എല്ലാവർക്കും പഠിപ്പിച്ചു തരികയും പിന്നെ നമ്മുടെ ചിത്ര രചനക്കായിട്ടൊരു ബുക്ക് തന്നെയുണ്ട് ആ ബുക്കില് നമ്മള് ഓരോ ദിവസവും ഓരോ ചിത്രങ്ങളൊക്കെ വരച്ച് ഇങ്ങനെ ടീച്ചറിനെ വന്ന് കാണിച്ചു കൊടുക്കാറൊക്കെ ഉണ്ട് ടീച്ചറ് ഇഷ്ട്ടപ്പെട്ട നല്ല ചിത്രമൊക്കെ ആണെങ്കിലും കൊള്ളില്ലാത്ത ചിത്രം തന്നെയാണെങ്കിൽ അത് നന്നാക്കി റെഡിയാക്കി തരികയും ഒക്കെ ചെയ്യാറുണ്ട്